ഏറ്റുമാനൂർ പച്ചക്കറിയുടെ ഒരു മൊത്ത വ്യാപാര കടയുണ്ട് അത് പേരുക്കാ ഏറ്റുമാനൂര് പേരുക്കവലയാണ് അവിടെ ഇഷ്ട്ടംപ്പോലെ പല സ്ഥലങ്ങളിൽ നിന്നും പച്ചക്കറികൾ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഈ ചെറുകിട വ്യാപാരികൾ എല്ലാം സാധനങ്ങൾ പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് വരുന്നത് ആ പച്ചക്കറികൾ എത്രയാണെങ്കിലും വിഷാംശം ചേർന്നതാണ് അത് ഇപ്പം പൊതുവെ എല്ലാത്തിനും വില കൂടുതലാണ് ന പ നൂറ് രൂപയിൽ കിടന്ന ഇഞ്ചിയും മറ്റും മുന്നൂറ് രൂപ വരെ വിലയ്ക്ക് വിലയായി അതുപോലെ തക്കാളിക്ക് പ എല്ലാത്തിനും കുത്തനെ വില കൂടി പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്ങരയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ അന്നന്ന് അപ്പത്തിന് കിട്ടുന്ന തുക കൊണ്ട് അവർക്ക് ഒന്നും ആകുന്നില്ല പിന്നെ ഓൺലൈനിൽ ഉള്ള സാധനങ്ങളെ പറ്റി കൂടുതലെനിക്ക് അറിയത്തില്ല ഞാൻ ഓൺലൈനിലും പരമായിട്ട് യാതൊരു സാധനങ്ങളും വരുത്തിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്നത് ചില പ്രാ ചില സ് പ്രോഡക്റ്റൊക്കെ നല്ലതായിരിക്കും ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നല്ലതല്ലായിരിക്കും ഇപ്പം ഒരു പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ പാത്രം ഒര് പടത്തെ കാ ഫോണിൽ കാണിക്കുമ്പോൾ വലിയതായിട്ട് കാണും പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം അതിലൊക്കെ ചെറുതായിരിക്കും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും